മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപന്നങ്ങൾ പ്രോസസിങ്ങിനും മറ്റ് നിരവധി ഉൽപന്നങ്ങളുണ്ടാക്കുന്നതിനും വളരെയധികം രീതികൾ ഉണ്ട് അതിൽ ഓരോ രീതികൾക്കും അന്തിമ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൻ്റെ ആദ്യത്തെയിതെന്നു പറയുന്നത് മൃഗങ്ങളെ അറക്കുക എന്ന പരിപാടിയാണ് മൃഗങ്ങളെ അറക്കൽ എന്നു പറയുമ്പം മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇങ്ങനെ കൊന്നതിന് ശേഷം മൃഗത്തിൻ്റെ മൃഗത്തിൻ്റെ ഒരു ഹലാൽ ഇതൊരു ഹലാൽ ഇതുപയോഗിച്ച് വേണം മൃഗങ്ങളെയറക്കുന്നത് അതിനുശേഷം കശാപ്പാക്ക എന്നു വെച്ചാൽ ഈ അറത്ത മൃഗത്തെ മൃഗത്തിൻ്റെ മാംസം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മുറിക്കുക ഇങ്ങനെ കശാപ്പ് ചെയ്ത ഇറച്ചി ഉ ഇറച്ചി ഈ സൂക്ഷിക്കുവാനായി കോൾഡ് സ്റ്റോറേജിലേക്ക് ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ഉപയോഗിച്ചത് സൂക്ഷിക്കുക അതിന് ശേഷം ഇതിൻ്റെ മറ്റുൽപ്പന്നങ്ങളായ ഇതിൻ്റെ തൊലിയെടുത്ത് ഷൂസും ലെതറും ഫർണിച്ചറുകളുമൊക്കെ ഉണ്ടാക്കുവാനായി അതിൻ്റെ പ്രോസസ്സിങ്ങിനായി അത് അയക്കുക അതിന് അത് കൂടാതെ ഇതിൽ മൃഗങ്ങളിൽ നിന്ന് ഉല്പാദിക്കപ്പെടുന്ന പാൽ തൈര് ചീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേറെ പ്രോസസ്സിങ്ങുമുണ്ട് ഇതുപോലെ തന്നെ മു മുട്ടയുടെ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ മുട്ട ഉൺ വി മുട്ട പ്രോസസ്സിങ്ങിനു വേണ്ടി വൃത്തിയാക്കലും അതിന് ഗ്രേഡിങ് പാക്കിങ് തുടങ്ങിയ പരിപാടികളൊക്കെയുണ്ട്

സൂക്ഷിക്കുക എന്നുള്ള ഇതുമുണ്ട് അതുകൂടാതെ കമ്പയിൽ സംസ്കരണമെന്ന പരിപാടിയുണ്ട് ഇതെന്നു വെച്ചാൽ ആടും മറ്റ് മൃഗങ്ങളെയും ഒക്കെ അമിതമായ മുടികൾ രോമങ്ങളുമൊക്കെ അത്ന്ന് പറിച്ചെടുത്ത് അത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കമ്പിളി പിന്നെ ഈ മൃഗങ്ങളെ വാങ്ങുന്നത് മുതൽ ഒടുവിൽ പണം സമ്പാദിക്കുന്നത് വരെയുള്ള നിരവധി സ്റ്റെപ്പുകൾ അഥവാ അ സ്റ്റെപ്പുകൾ അഥവാ പല രീതികളുണ്ട് അതിന് ആദ്യത്തെ ഇതെന്ന് പറയുന്നത് മൃഗങ്ങളെ വാങ്ങുകയെന്നാണ് പൈസ നമ്മൾ കൈയ്യിൽ നിന്ന് പൈസ മുടക്കി മൃഗങ്ങളെ വാങ്ങുന്നു അതിനുശേഷം മൃഗങ്ങളെ നമ്മൾ പരിപാലിച്ച് ഭക്ഷണവും വെള്ളവും വായുവും എല്ലാം കൃത്യമായി ലഭിക്കുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുന്നു അവങ്ങളുടെ കാഷ്ടവും മൂത്രവുമെല്ലാം നമ്മൾ വൃത്തിയായി വെക്കുന്നു അതിനു ശേഷം അവയിൽ അവയിൽ നിന്നും ലഭ്യമാകുന്ന പാൽ മാംസം മുട്ട തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ലഭ്യം ലഭ്യമാക്കാനുള്ള ഓരോ പരിപാടികൾ ചെയ്യുക അതിനു ശേഷം അത് വിപണനം ചെയ്യുക എന്ന് വെച്ചാൽ വിൽപ്പന നടത്തുക അങ്ങനെ വിൽപ്പന നടത്തി അതിൻ്റെ പണം കൃത്യം കൃത്യമായി നമ്മൾ കയ്യിൽ വെക്കുക